ഹലോ ആ ഹലോ ആ ആ അതെ അതെ അതെ അതെ അതെ അതെ ആ ആ ശരി ശരി ആ ആ അതെ അതെ നിങ്ങളുടെ നിങ്ങളുടെ വരുമാനം അനുസരിച്ചിട്ടാണ് ലോൺ കൊടുക്കുന്നത് അപ്പം ആ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരമൊക്കെ കാണിക്കണം ഇവിടെ കൊടുക്കാൻ കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ ഭർത്താവും ഭാര്യയും രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം കാണിക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്ര വരെ ഗഡുക്കളായിട്ട് കെട്ടാൻ പറ്റുമെന്നുള്ള സാധ്യത നോക്കിയിട്ടാണ് ഞങ്ങളെ ഈ ലോൺ കൊടുക്കുന്നത് ആ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് ലോൺ ആ അതെ അല്ലേ ആ അപ്പൊ ചെറിയ ചെറിയ ഒരു പൈസ ആണല്ലോ അതെ ആ പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ചെറിയ വീട് ആവത്തുള്ളൂ ആ ശരി ശരി അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ആ പറയൂ ആ നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ ബാങ്കിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം തരും അത് ഫില്ലപ്പ് ചെയ്യണം ഫില്ലപ്പ് ചെയ്തിട്ട് പിന്നെ പിന്നെ ആ നിങ്ങൾ വരുമ്പഴ് നിങ്ങൾ ആധാർ കാർഡ് അത് ഐഡൻറ്റി കാർഡ് കൊണ്ടുവരണം ഐഡൻറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ആണ് മെയിൻ വേണ്ടത് പിന്നെ നിങ്ങളെ വരുമാനം ആ പിന്നെ നിങ്ങളെ വരുമാന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം പിന്നെ നിങ്ങളെ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതു കൊണ്ടു വരണം പിന്നെ നിങ്ങൾ സ്ഥലത്തിൻ്റെ നികുതി ആയിട്ട് അത് ലെറ്റർ ഉണ്ട് അത് നികുതി അടച്ചതിൻ്റെ സ്ഥലത്തിൻ്റെ നികുതി അടച്ചതിൻ്റെ അടച്ചതിൻ്റെ റസീപ്റ്റ് ആ ആ അതൊക്കെ കൊണ്ടുവരണം കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ രണ്ടു പേർ നിങ്ങൾക്ക് സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് സാക്ഷ്യത്തിന് നിങ്ങൾ ലോൺ എടുക്കുന്നതിന് രണ്ടുപേരുടെ ആ അതെ അവരുടെ ഒപ്പ് വേണം ആ അതെ അതെ ആ ആ സാക്ഷ്യത്തിൻ്റെ അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കൂടി കൂട്ടിക്കൊണ്ടു വരണം നിങ്ങൾക്ക് ആറി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആവാം നിങ്ങളുടെ ബന്ധുക്കൾ ആകാം ആരു വേണമെങ്കിലും ആവാം അപ്പോൾ അത് അത് കിട്ടുംബം കിട്ടുമ്പോൾ കുറച്ച് സമയം എടുക്കും ഞങ്ങൾക്ക് എല്ലാം ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അതെ ആ ആ എത്ര മാസം എന്ന് പറയാൻ പറ്റുന്നില്ല ചിലപ്പോൾ വേഗത്തിൽ ആവാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ലേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാലും എത്രയും പെട്ടെന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അത്രയും വലിയ എമൗണ്ട് ഒന്നുമല്ലല്ലോ പക്ഷേ നിങ്ങൾ അത് ഒരു ഓരോ മാസവും ശരിയായ രീതിയിൽ ഗഡുക്കള് നിങ്ങൾ കെട്ടണം ഒരു മാസം നിങ്ങൾ അത് മൊടങ്ങിയാൽ അത് കുറച്ചു പ്രോബ്ലം ആകും അതുകൊണ്ട് അത് അതിന് ഒരു സാക്ഷ്യപത്രം ഒക്കെയുണ്ട് അത് ആ ആ അതെ അതെ ആ അതിൻ്റെ ആ ഒരു സാക്ഷ്യപത്രത്തിൽ ഒക്കെ നിങ്ങൾ ആ സാക്ഷ്യപത്രത്തിൽ ഒപ്പ് എല്ലാം ഇട്ടിട്ട് ഒക്കെ ഞങ്ങൾക്ക് ഒപ്പല്ലേ എടുക്കും ഞങ്ങള് അപ്പം അതനുസരിച്ച് ആ അതൊക്കെ ആ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ അപ്പം നിങ്ങൾ അപ്പം വരുക നാളെ സമയം കിട്ടുമ്പം രാവിലെയോ ഉച്ചയ്ക്കോ ശേഷം മറ്റോ വന്നാൽ എല്ലാം ചെയ്തുതരാം കേട്ടൊ ഓക്കേ ആ ശരി ശരി